ഹലോ ഇവിടെ അടുത്തുള്ള ഓരാളായിരുന്നു ആ തോപ്രാംകുടിയിൽ നിന്നാണ് തോപ്രാംകുടി ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷനുണ്ടായിരുന്നല്ലോ ആ അതിന് അത് അഞ്ചാം തീയതി ആ അതവിടെ ഒരു ആദ്യ കുർബാനയുടെ പരിപാടിയാണ് അപ്പം ആ അതെയായിരുന്നു ഫുഡിന് ഓർഡർ ചെയ്യാനായിരുന്നു ഇവിടെ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ആ അല്ലാത്തതാണ് അങ്ങനത്തെ ഐറ്റംസ് വേണ്ട അല്ലാതെ നമുക്ക് ഒരു ആൾക്കാർക്ക് കഴിക്കാൻ കൊടുക്കാൻ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്പോൾ അപ്പം ഇടിയപ്പം പൊറോട്ട ആ അതിൻ്റെ ആ ഉം ഉം അത് തന്നെ ഞങ്ങൾക്ക് കപ്പയും വേണം പിന്നെ ഇടിയപ്പം എല്ലാ സയിസും വേണം അത് നമുക്കൊരു ആ അതെ അതെ അതെ ആ അത് ഇരുപത്തഞ്ച് എണ്ണം അത് കുഴപ്പമില്ല ഇരുപത്തെട്ട് അത് കുഴപ്പമില്ല അത് ഒര് മുപ്പത് പേർക്ക് മുപ്പത് എണ്ണം വീതമല്ലേ നൂറ് പേർക്കുള്ള ഒരു ഇത് ഫങ്ങ്ഷനാണ് നൂറ് അപ്പം അതിൻ്റെ റെയിറ്റ് ചെറുകടി വേണ്ട

ആ ആ ആ ആ കറിയും വേണം മീനും വേണം ബീഫും വേണം എല്ലാം വേണം ആ അതിൻ്റെയൊക്കെ റെയിറ്റ്

ആ ആ ഹാ ഇറച്ചി അതേ അല്ലെ ആ അപ്പം ഒരു നൂറ് പേർക്കുള്ളത് വേണം നൂറ് പേർക്കുള്ളത് വേണം ആ അപ്പോൾ നമുക്ക് എല്ലാം ഒരു പത്ത് നൽപ്പത് എണ്ണം വീതം ഉച്ചയ്ക്കുള്ളത് വേണം ആ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുമിച്ചെടുത്താൽ മതി ആ

ഉം കപ്പ ആ അങ്ങനെ മതി ഇച്ചിരിയൊക്കെ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ആ ഇച്ചിരിയും കൂടെ എക്സ്ട്രാ കൂടെ വെക്കണം ആ പൊറോട്ടയും പൊറോട്ടയും ആ തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം അതിൻ്റെ അത് അഞ്ചാം തീയതി അഞ്ചാം തീയതി എൻ്റെ പേര് ബേബി കുര്യൻ അതെ ആ ഈ വിളിക്കുന്ന നമ്പറാണ് അപ്പം ആ നേരിട്ട് വരില്ല നിങ്ങൾ അവിടെ എത്തിച്ച് തരണം ആ അതെയതെ അതെ അതൊരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പഴത്തേക്കും കൊണ്ടുവരാൻ പറ്റുമോ രാവിലെ പതിനൊന്നര ആ പള്ളി കഴിഞ്ഞ് വരുമ്പം വെജ് വെജിറ്റബിൾ വേണം വെജിറ്റബിൾ വേണം വെക്കണം വെജിറ്റബിളും വെക്കണം ഉം പിന്നെ സ്റ്റ്യൂ വേണം ഉം ഉം ആ അത് കുഴപ്പമില്ല ആ അതെയതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പരമാവധി പരമാവധി കോസ്റ്റ് കുറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ ആ ഉം അതെ അതെ അതെ റേറ്റ് കുറച്ചത് കൊണ്ട് ക്വാളിറ്റി കുറവ് വരുത്താൻ പറ്റത്തില്ല ആൾക്കാർ തിന്നേച്ച് ചീത്ത പറയും

ആ അതേയതെ അതെ ആ പിന്നെ കുഴപ്പമില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ